നമ്മുടെ കേരളത്തിന് മാത്രം തനതായുള്ള ഒത്തിരി ഉത്സവങ്ങൾ കാര്യങ്ങൾ അത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി പങ്കെടുക്കേണ്ടതും കാണെണ്ടതും തന്നെയാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂര് പൂരം തൃശ്ശൂര് പൂരം ആനയെ അ രണ്ട് സൈഡിലും ആനകള് നിൽക്കുന്നത് അതുപോലെ തന്നെ കുടമാറ്റം വെടിക്കെട്ട് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂര് പൂരത്തിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെട്ടിക്കെട്ട് തന്നെയാണ് അത് ട്രയല് നടത്തുക അതിനുവേണ്ട കാര്യങ്ങൾ ഒരുക്കുക ചെയ്യുക തൃശ്ശൂര് പൂരത്തിന്റെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ് ശരിക്കും പറഞ്ഞാല് അത് പോയി കണ്ട് നമ്മൾ കാണെണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആള്ക്കാർ വരുന്നു പങ്കെടുക്കുന്നു ചെണ്ടമേളം വെടിക്കെട്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽന്ന് പോകില്ലാത്തൊരു എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തീര്ച്ചയായിട്ടും എല്ലാവരും പോയി കാണെണ്ട കാര്യങ്ങൾ തന്നെയാണ്